ഊബ്ബർ അല്ലേ ആ ഞാൻ ഇവിടെ കവടിയാർ നിന്നാണ് വിളിക്കുന്നത് ഞാൻ കുറേ അര സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ കവടിയാറിലേക്ക് വന്ന കാറിൽ എൻ്റെ വാലറ്റ് വച്ചു മറന്നു പോയി ഓ ആ വണ്ടി തിരിച്ച് അങ്ങ് പോന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ ഓ ഓ ഓ അപ്പോൾ പുള്ളി നേരെ നേരെ അവിടെ തന്നെയാണല്ലോ വരണത് ഓ ഓ വരുമ്പോൾ ഒന്നു കൂടെ അയച്ചാൽ മതിയോ അപ്പോൾ അത് ഞാൻ എമൗണ്ട് ഞാൻ അയക്കാം ഓൺലൈനിൽ അയക്കാം ഓ ഓ ഓ അവിടെ എത്തിയതിന് ശേഷം ഓക്കേ എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി ഒരിക്കൽ കൂടെ പുള്ളിയെ ഒന്നു കൂടെ വിട്ട് ഐനിങ് തരീക്കണം ഓ ശരി ശരി ഓക്കെ ഓക്കെ എന്നാൽ ശരി